ഇപ്പം മലയാളഭാഷയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് സവിശേഷതകളുണ്ട് ഇപ്പോൾ മലയാളഭാഷയിപ്പോൾ എന്താ പറയുക അർത്ഥവത്തായിട്ടുള്ള ഒരു ഭാഷ തന്നെയാണ് ഇപ്പോൾ പുറത്തു നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ അന്യസംസ്ഥാനത്തു നിന്നൊക്കെ തൊഴിലാളികൾ ഇപ്പോൾ മലയാളത്തിൽ എന്താ പറയുക കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാലും അവർ എന്താ വന്നു കഴിഞ്ഞ് ചുരുങ്ങിയ ടൈം കൊണ്ടു തന്നെ മലയാളഭാഷ പഠിക്കുകയും മറ്റുള്ളവരോട് ആശയവിനിമയങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എന്താ പറയുക മലയാളഭാഷ എല്ലാവർക്കും തന്നെ ഫ്ലുവൻറ്റായിട്ട് പഠിക്കാനും അതുപോലെത്തന്നെ സംസാരിക്കാനായിക്കോട്ടെ എഴുതാനായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എളുപ്പത്തിൽത്തന്നെ സാധിക്കുന്നൊരു ലാംഗ്വേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇപ്പം പുറമേ നിന്നുള്ള ആൾക്കാർവരെ മലയാള ഭാഷ പഠിക്കാനൊക്കെയായിട്ട് എന്താ പറയുകാ ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ മലയാളഭാഷ എളുപ്പത്തിൽത്തന്നെ പഠിച്ചെടുക്കുന്നുണ്ട് പിന്നെന്താ പറയുക ഈ ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ എവിടെ ചെന്നു കഴിഞ്ഞാലും ഒരു മലയാളി ഇപ്പോൾ സമൂഹത്തിൽ എവിടെച്ചെന്നു കഴിഞ്ഞാലും ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതുപോലെ മലയാളം അറിയാവുന്നവർ എല്ലായിടത്തും എത്തിപ്പെട്ടു എന്നാണ് ഇതിൻ്റെ ഒരു മെയ്നായിട്ടുള്ള ക്വാളിറ്റി ബേസ് പറയുകയാണെങ്കിൽ അപ്പോൾ മലയാളമെന്നു പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഒരു നല്ലൊരു അഭിപ്രായം ആണ് ഇപ്പോഴും ഉള്ളതെന്നാണ് എൻ്റെ ഒരു നിഗമനം